ആ പിന്നെ ഇത് എവിടെയാണ് സ്ഥലം എവിടെയാണ് ഇത് മലപ്പുറം ഭഗത്താണ് ആ പിന്നെ എനിക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബൈക്ക് വേണമായിരുന്നു നല്ല രീതിയിൽ ഉള്ളത് ഏതൊക്കെ ആണ് ഒരു അത്യാവശ്യം സി സി ഒരു ഇരുന്നൂറ് സി സി യുടെ ഉള്ളിൽ ഓടുന്നത് മൈലേജ് ഒക്കെ അത്യാവശ്യം കിട്ടുന്ന ഒരു ഒരു നല്ല സാധനം വേണം അപ്പോൾ

ആ അത് ഇതിൽ ഇപ്പം ഒരു ഒന്നേകാലിൻ്റെ ഒന്നിൻ്റെ ഒക്കെ ഉള്ളിൽ വരുന്ന നല്ല റേറ്റ് ഏതൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ ആ

ആ ആ ആ അപ്പോൾ എനിക്ക് ഇപ്പോൾ ബുള്ളറ്റ് ഒന്നും വേണമെന്നില്ല അത്യാവശ്യം വെച്ചാൽ അങ്ങനത്തെ ഒരു അത് ആ ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ പോകാൻ പറ്റിയ അങ്ങനത്തെ വെഹിക്കൾ ആണ് വേണ്ടത് ഹീറോ ഉണ്ടോ അങ്ങനത്തെ ഹോണ്ട ഒക്കെ വെഹിക്കൾ ഉണ്ടെങ്കിൽ യൂണിക്കോൺ അങ്ങനത്തെ വെഹിക്കിളൊക്കെ ഉണ്ടോ ആ ആ അങ്ങനത്തേതിന് ഒക്കെ എത്രയാണ് റേറ്റ് എത്രയാണ് വരുന്നത് ഏകദേശം അതിൻ്റെ അതിൻ്റെ മെയിൻ്റടെയ്നൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അയക്കാറില്ലേ മെയിൻ്റടെയ്നൻസും കാര്യങ്ങളും ഒക്കെ ഒക്കെ ചെയ്ത് തരുന്നത്

ആ അങ്ങനെത്തേത് വേണ്ട ഗിയർ ഗിയർലെസ് വേണ്ട ഗിയർ ഉള്ളത് തന്നെ പിന്നെ അതിന് ഇപ്പോൾ ഓഫർ വല്ലതും കൊടുക്കുന്നുണ്ടോ ഹെൽമറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ആ ആ ആയിക്കോട്ടെ ഞാൻ എന്നാൽ വിളിക്കാം കേട്ടോ എന്നാൽ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യൂ